അതെ മാഡം പറഞ്ഞോളൂ ഓക്കെ

ഓ താങ്ക് യു മാഡം താങ്ക് യു സോ മച്ച് നിങ്ങളുടെ റിക്വയർമെൻറ്സ് അനുസരിച്ച് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തുതരാം കസ്റ്റമൈസേഷനും എല്ലാം അവൈലബിൾ ആണ് നിങ്ങളെ റിക്വയർമെൻറ്സ് പറഞ്ഞാൽ മതി ഓ ഓ യാ യാ അതൊരു നല്ലൊരു ഐഡിയ ആണ് ഇപ്പം കുറേ പേർ അത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇവെൻ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം അധികം പേരും അതാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് ഓ തീർച്ചയായും നിങ്ങളുടെ റിക്വയർമെൻറ്സ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഇവൻ്റിൻ്റെ ഡേറ്റും സമയം ഒക്കെ മുൻകൂട്ടി ഒരു മാസം മുമ്പെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും പിന്നെ ഇവിടെ വെന്യൂ നേരത്തെ ഒന്ന് പറഞ്ഞിരിക്കണം എന്നാലേ ഇത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ റിക്വയർമെൻറ്സ് എന്താണെന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ ഓക്കെ മാം

ഓക്കെ മാം ഷുവർ ആയിട്ടും മാമിൻ്റെ റിക്വയർമെൻറ്സ് അനുസരിച്ച് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ ഒരു ബ്രീഫ് ഞാൻ ഇട്ടുതരാം അതെ അത് നോക്കിയിട്ട് മാമിന് പറ്റുന്ന രീതിയിൽ ഏതാണെന്ന് വെച്ചാൽ പ്രൈസ് അനുസരിച്ച് ചെയ്ത് തന്നാൽ മതി പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ താങ്ക് യു മാം താങ്ക് യു ഞങ്ങളെ കൺസൾട്ട് ചെയ്തതിൽ താങ്ക് യു